എൻ്റെ മുറ്റത്ത് പഴങ്ങളധികം പറയാനില്ല ഞാൻ ഒക്കെ നട്ട് വച്ചിട്ടേ ഉള്ളൂ പൂക്കൾ പക്ഷേ കുറെ ഉണ്ട് പൂക്കൾ കുട്ടികളൊക്കെ പറിക്കാറുണ്ട് പിന്നെ ഞാൻ എന്താ പറയാ അമ്പലങ്ങളിലേക്ക് വരുന്ന കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇപ്പം ഓണം അങ്ങനെ അവർക്കെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്ന് പൂക്കൾ പറിച്ചോണ്ട് പോകാറുണ്ട് ഇനി വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ പഴങ്ങൾ ഇല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ അതൊക്കെ നട്ടിട്ടേ ഉള്ളൂ ഈ ഇത് ഇപ്പം റംബൂട്ടാൻ അല്ലെങ്കിൽ മാവ് ഇതൊക്കെ നട്ടിട്ടേ ഉള്ളൂ പഴങ്ങളാവുന്നതെ ഉള്ളൂ പിന്നെ പഴങ്ങൾ പിന്നെ അങ്ങനെ ഉള്ളപ്പം നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഇപ്പം റീപ്ലാൻറ്റ് ചെയ്തതായിരുന്നു നേരത്തെ ഉള്ളപ്പം ഇങ്ങനെ അടുത്ത വീടുകളിൽ കൊടുക്കുമായിരുന്നു കടയിൽ കൊണ്ട് അങ്ങനെ വിറ്റ് പൈസ മേടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ നട്ട് കടയിലേക്ക് കൊടുത്ത് പൈസേം അങ്ങനെ വിറ്റ് പൈസ മേടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പച്ചക്കറികളാണേലും അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം പഴങ്ങളാണേലും ഒക്കെ ഇപ്പം പിന്നെ എല്ലാം ഒന്ന് റീപ്ലാൻറ്റോയോണ്ട് അങ്ങനെ പഴങ്ങളില്ല പക്ഷേ പൂക്കളിപ്പളും ധാരാളം തന്നെയുണ്ട് അത് കുട്ടികളൊക്കെ ആണേലും അവർക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാറുണ്ട് പറിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്നാലും നമുക്കത് കാണുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് എനെർജിയായി ഈ പൂക്കൾ ശരിക്കും എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു തോട്ടം ഒരു ചെറുതാണെലും ഇപ്പം സ്ഥലം കുറവുള്ളവർക്ക് പോലും ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു അടുക്കള തോട്ടം എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ടെറസ്സിൽ വേണമെങ്കിൽ നമുക്ക് ചെടികളൊക്കെ ഒന്ന് ഗ്രോ ബാഗിലോ ഒക്കെ നടാം ഇതൊക്കെ നമുക്ക് കാണുമ്പം ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ആ ചെടീന്ന് ഒരു പൂ പറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു പഴം പറിക്കുമ്പം ഒരു സന്തോഷം അതൊക്കെയാണ് മെയിൻ കാര്യം അല്ലേ നമ്മൾ നട്ടുണ്ടാക്കിയൊരു പഴം പറിക്കുമ്പം നമ്മുടെ മനസ്സിനെന്താണ് ഒരു ഒരു സന്തോഷം പൊതുവേ ഉണ്ടാകാറുണ്ട് അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രധാനം കാര്യം അതാണ്